ഞാൻ ധ്യാനം ചെയ്യാറുണ്ട് മൈൻഡ് ഓക്കേ അവാൻ വേണ്ടീട്ട് പിന്നെ കണ്ടിന്യൂസായിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ കണ്ടിന്യൂസായിട്ട് ചെയ്യുന്നതാണ് ധ്യാനം എനിക്ക് ഭയങ്കര ഇഷ്ടവും ആണ് നമ്മുടെ ആദ്യ ഗുരു മഹാദേവനാണെന്നും ഒക്കെയാണല്ലോ മഹാദേവൻ ഏ പിന്ന യോഗ ചെയ്യുന്ന അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ള ഞാനൊരു എനിക്ക് കഥകളും പുരാണങ്ങളും ഒക്കെ ഇഷ്ടമാണ് നമ്മളേത് പിന്നെ ഏത് ജാതിയിൽ ഏത് വിശ്വാസത്തിൽ ഡിപ്പെറ്റ് ചെയ്യ്തൂന്നല്ല നമ്മൾ ആരെ ആരെ നമ്മൾ പിന്നെ നമ്മൾ ആരെ ഇങ്ങനെ നമ്മൾ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നു അല്ലോ ആരാധന തോന്നുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അപ്പം ഞാൻ എനിക്ക് ഞാൻ പ്രാണയാമം ചെയ്യാറുണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് യോഗേലെ ധ്യാനം ചെയ്യാറുണ്ട് സൂര്യ നമസ്കാരം ചെയ്യാറുണ്ട് അതൊക്കെ എൻ്റെ ജീവിതത്തിലെ യോഗാഭ്യാസത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്